നമ്മുടെ വിദ്യാലയങ്ങളിലാണെങ്കിൽ കലയും കൗശലങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട് പ്രത്യേക സമയങ്ങളുണ്ട് നമുക്ക് അതിനു വേണ്ടിട്ട് ആണെങ്കിൽ കുറച്ച് സമയങ്ങൾ മാറ്റി വെക്കാറുണ്ട് പഠനത്തിന് വേണ്ടി മാത്രമല്ല ഈ ഒരു രീതീലും കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ വർധിപ്പിക്കാനും വേണ്ടിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇപ്പോൾ വിദ്യാലയങ്ങളിലാണെങ്കിലും നമുക്ക് അവർ സമയങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്കാണെങ്കിൽ കടലാസ് ബോട്ട് മഴയത്താണെങ്കിൽ കടലാസ് ബോട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് നമുക്ക് അറിയില്ലെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതെന്ന് കുട്ടിക്കാലത്താണെങ്കിലും നമ്മളെ അത് പഠിപ്പിച്ചു തരാറുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ നമ്മൾ നമ്മൾ ക്ലേ കൊണ്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് ഓരോന്നൊക്കെ ഓര് പഠിപ്പിച്ചു തരാറുണ്ട് നമുക്ക് ഈ നമ്മുടെ കുട്ടിക്കാലത്ത് ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ കടലാസ് ബോട്ടുകൊണ്ടാണെങ്കിലും ഉണ്ടാക്കി വെള്ളത്തിൽ അത് ഒഴുക്കി കളിപ്പിക്കുക കളിക്കുക അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ എന്താ പറയാ നമ്മുടെ വിദ്യാലയങ്ങളാണെങ്കിലും മറ്റു പല രീതിയിലും നമ്മളെ ആണെങ്കിലും ഓരോ രീതിയിൽ അല്ലെങ്കിൽ എംബ്രോയിഡറി അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളിലൂടെയും നമുക്കാണെങ്കിലും ആ ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതിലൂടെ ആണെങ്കിൽ നമുക്ക് ഓരോ ഓർമ്മകളും പുതുക്കാൻ പറ്റുന്നുണ്ട്